ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ജോലി സാധ്യതകൾ ഒക്കെ കുറവാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തുച്ഛമായ രീതിയിലുള്ള ക്യാഷ് കാര്യങ്ങളൊക്കെ ആണ് സാലറി ആയിട്ട് കൊടുക്കുന്നത്ത് ഇപ്പോൾ കൂടിപ്പോയാൽ ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത്ത് അതിലും മേളിലേക്ക് നമ്മൾ ഇന്ത്യയിൽ ആർക്കും ശമ്പളം ഒന്നും കൊടുക്കുന്നില്ല അപ്പം ഈ കാലഘട്ടത്തിൽ ഈ മുപ്പതിനും ഇരുപതിനും ഒന്നിനും ഇവിടത്തെ ആൾക്കാർ ജീവിച്ചിരുന്നിട്ട് എന്താ പറയാ ജി ജീവിച്ചിട്ട് കാര്യമില്ല അപ്പം അപ്പോൾ കൂടുതൽ ക്യാഷ് കിട്ടുന്നോടുത്ത് ആൾക്കാർ എന്ത് ആയാലും പോവും അപ്പം ഇവിടന്ന് എല്ലാവരും എന്ത് ചെയ്യാ പുറത്തേക്ക് പോകുവാണ് അപ്പം ഈ കാനഡ ദുബായ് അബുദാബി അങ്ങനെ ഇപ്പം പല സ്ഥല പല രാജ്യങ്ങളിലേക്കും പോകുവാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഇവിടത്തെ കാട്ടും കൂടുതൽ ക്യാഷും കിട്ടും നല്ല സുഗമായിട്ടുള്ളൊരു ജീവിതം ആണ് അത്യാവശ്യം നല്ല രീതിയിൽ പണി എടുത്താലും നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും ഇവിടത്തെ കാട്ടും ഇപ്പോൾ ഇവിടെ മുപ്പതിനായിരം രൂപയാണെങ്കിൽ അവിടെ അറുപത് എഴുപത് എൺപത് അങ്ങനെ ഒരു ലക്ഷം രൂപേൻ്റെ മേളിൽ ഒക്കെ നല്ല സാലറി ഉള്ള ജോലികളുണ്ട് അപ്പം ഇവിടന്ന് എല്ലാവരും അങ്ങോട്ടേക്ക് പോകുവാണ് അപ്പം നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞ് ജോലിക്ക് ആളെ കിട്ടാത്ത ഒരു അവസ്ഥയാണ് അപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ കൂടുതലായിട്ടും ജോലി ജോലിക്ക് ആൾ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അപ്പം പുറമേ നിന്നിട്ട് ബംഗാളികളും അവരൊക്കെ വന്നിട്ട് ജോലി എടുക്കാറാണ് പതിവ് അപ്പോൾ അത് ഭയങ്കര മോശം ആയിട്ടുള്ള ഒരു അവസ്ഥ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്